എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എന്നു പറഞ്ഞാൽ ഇയ്യോബിൻ്റെ പുസ്തകം അങ്ങനത്തെ അതിലെ ആടുജീവിതം അങ്ങനെയുള്ള ബുക്ക് ഒക്കെ വായിക്കാൻ ഇഷ്ടമാണ് വലിയ കഥകൾ ഇല്ലെങ്കിൽ ഒരാളുടെ ജീവചരിത്രം ആസ്വാദനക്കുറിപ്പ് അങ്ങനെയുള്ളതൊക്കെ വായിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടം തന്നെയാണ് പിന്നെ സിനിമ സിനിമയാണെങ്കിൽ എല്ലാ സിനിമയും ഇഷ്ടമാണ് അതിലിപ്പോൾ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്ന സിനിമയെന്നു പറഞ്ഞാൽ ദിലീപിൻ്റെ ആണെങ്കിലും മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെയുള്ള ജയറാം പൃഥ്വിരാജ് അങ്ങനെയുള്ള ഒരു ഒരുപാട് സിനിമാ നടന്മാരുണ്ട് അതിൽ എല്ലാവരുടെ സിനിമ കാണാനും ഇഷ്ടം തന്നെയാണ് ഒരാളുടെ സിനിമ മാത്രമായിട്ടില്ല ഒരാളുടെ സിനിമയെന്നു പറയുകയാണെങ്കിൽ ദിലീപിൻ്റത് ഇഷ്ടമാണ് ദിലീപിൻ്റെ ടീവിയിൽ എപ്പോൾ ഉണ്ടെങ്കിലും ഞാൻ കാണാറുണ്ട് പിന്നെ ടി വി ഷോയെന്നു പറഞ്ഞാൽ എന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാമ് ഡാൻസ് കേരള ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ കാണാറുണ്ട് പിന്നെ കൂടുതലായിട്ട് കാണുന്നത് സീരിയലാണ് സീരിയലുകൾ എല്ലാവരും തന്നെ ഇപ്പോൾ കാണുന്നതൊക്കെയാണ് അതുകൊണ്ടു തന്നെ ഞാനും അങ്ങനെ ഒഴിവു സമയമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ സീരിയലൊക്കെ കാണാറുണ്ട് അതുകൊണ്ടു തന്നെ സിനിമയും ടീ വി ഷോയും പുസ്തകവും ഒക്കെ ഇഷ്ടം തന്നെയാണ്